ഹലോ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഹോട്ടലിലോട്ട് വിളിക്കാനുള്ള റീസൺ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസമൊരു ഫുഡ് ഓഡർ ചെയ്തായിരുന്നു അപ്പതിൻറ്റൊരു റസീത് ആപ്പ്ളിക്കേഷനിൽ നിനൊന്നു ഡൗൺലോഡ് ചെയ്തു തരുമോയെന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാനിവിടടുത്തൊരു വില്ലയിൽത്തന്നെയാണ് താമസിക്കുന്നത് എൻ്റെ പേര് അമൃതയെന്നാണ് പം ആടത്തൊരു ഭക്ഷ്ണത്തിൻ്റെ ഒരു ഓഡർ ഡെലിവറി നൽകിയിരുന്നു കൂടാതെ എന്നെ അതിൻ്റെ റെക്കോഡുകളിനു ആവശ്യങ്ങൾക്കു വേണ്ടി ആ റസീതിൻറ്റൊരു പകർപ്പാവശ്യമാണ് അപ്പതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ റെസ്റ്റോറിൻ്റെ വെബ്സൈറ്റിലേക്കോ ആപ്പിലേക്കോ പോയി ആ ഓഡർ ലിസ്റ്റിൽ നിന്ന് ഡിഷസിൻറ്റൊരു പകർപ്പായിരുന്നു എനിക്കു വേണ്ടത് അപ്പത് കുറച്ച് ആവശ്യങ്ങൾക്കു വേണ്ടി ആയിരുന്നു വീട്ടിലെ ചിലവു വരവുകളൊക്കെ ഒന്ന് നോക്കി വെയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ സാധാരണ ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ മെടിക്കുന്ന സാധനങ്ങളൊക്കെ ലിസ്റ്റ് നമ്മൾ എടുത്തു വെയ്ക്കാറുണ്ട് ഇതെന്തൊരു റസീതിൻ്റെ പകർപ്പ് പക്ഷേ ഇതിൻ്റെ മാത്രമാ അന്നേരത്തൊരു സാഹചര്യം കൊണ്ട് എടുത്ത് വെയ്ക്കാൻ സാധിച്ചിരുന്നില്ല അപ്പതു കൊണ്ടാണിപ്പോൾ നിങ്ങളോടു ചോദിച്ചത് അപ്പം നിങ്ങൾക്ക് അതിനു വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നു പറയാമോ ഞങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ അതു കിട്ടുകേലെ അതോ നിങ്ങൾക്കു വാക്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനെ പറ്റി അറിയാമൊ അപ്പം ഞങ്ങളുടെ വില്ല അവിടെ അടുത്തു തന്നെയാണ് ശ്രീനഗർ വില്ലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് തേട്ടി എയ്റ്റ് വൺ ടു എ അവിടൊരു റെൻ്റിനായിട്ടുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പം നിങ്ങളുടെ ഡെലിവറി ബോയ് ആണെന്നു തോന്നുന്നു ഇവിടെ കൊണ്ട് സാധനം തന്നായിരുന്നു ഞങ്ങൾ ഡയറക്റ്റ് ഓഡർ ചെയ്തിരുന്നു വന്നി വന്നില്ല റെസ്റ്റോർൻ്റിലോട്ടു വന്നിരുന്നില്ല അപ്പം ഈ രസീതിൻ്റെ കോപ്പി കിട്ടാൻ വേണ്ടി ഞങ്ങൾ റെസ്റ്റോർൻ്റിലോട്ടു വരേണ്ടതുണ്ടെങ്കിലും പറഞ്ഞാൽ മതി